ടു ഡേയ്സ് എഗോ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നു ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുവെച്ചാൽ വളരെ മോശം പ്രോഡക്റ്റെന്ന് അത്രയും മോശം കാരണം ഓൺലൈനിൽ റിവ്യൂ കൊടുത്തതോ അല്ലെങ്കിൽ അവര് ഡീറ്റെയിൽസ് കൊടുത്തതോ ഒന്നും പോലെ ആയിരുന്നില്ല വാങ്ങിച്ച ഞാന് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ഫോൺ ആയിരുന്നു അതിൽ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനത് യൂസ് ചെയ്ത് നോക്കുന്ന സമയത്തു കോൾ എന്തേലും ചെയ്യണ സമയത്ത് വളരെ ലോ വോളിയം സോങ്ങ് എന്തേലും പ്ലേയ് ചെയ്യണ സമയത്ത് ആ ഒരു സോങ്ങിൻ്റെ ആ ഒരു ഫീലോ ഒന്നും അതില് കിട്ടുന്നേ ഇല്ല ക്വാളിറ്റി പറഞ്ഞാൽ വളരെ ലോ ക്വാളിറ്റി പിന്നെ പുറത്തുള്ള ആ ഒരു നോക്കാമെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി അതെ വളരെ മോശമാണ് വളരെ ഒരു ഒരു എന്താ ലോ ക്വാളിറ്റി മെറ്റീരിയല് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു അതേ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് ഓൺലൈനില് വാങ്ങിക്കുമ്പോൾ നല്ല ഒരു പുറത്തുള്ള ആ ഒരു ഇതൊക്കെ നല്ലൊരു ഇതായിട്ടാണ് കാണിക്കണത് പിന്നെ കോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന മെറ്റലൊക്കെ ക്വാളിറ്റി മെറ്റൽ മെറ്റീരിയൽ ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാ രീതിക്ക് നോക്കാമെന്ന് വെച്ചാലും മൊത്തത്തിലൊരു ഒരു വേർസ്റ് പ്രോഡക്റ്റ് തന്നെ പറയാൻ പറ്റുകയുളളൂ കാരണം വാല്യൂ ഫോർ മണി എന്ന് പറയാനുള്ള ഒരിതും ഇല്ല അത് അത്രയും എമൗണ്ട് പേ ചെയ്തിട്ട് ആണ് ഞാന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് റിട്ടേൺ കൊടുക്കുകയാണ് ഇപ്പോൾ